ഞാനൊരു മെൻസ് ക്ലബിൽന്ന് ഒരു ഷർട്ട് എടുത്തിരുന്നു ആയിരത്തി അഞ്ഞൂറ് ഉർപ്പിയ കൊടുത്ത്ന് അതിന് പക്ഷെ ഷിർട്ടിന് ആയിരഞ്ഞൂറ് ഉറുപ്യൻ്റെ ക്വാളിറ്റി ഒന്നും ഇല്ല അത് രണ്ട് പ്രാവിശ്യമായിട്ട് തിരുമ്പിയപ്പോഴേക്ക് അതിൻ്റെ നൂലൊക്കെ പിന്നി ആകെ ഈ റോഡ് സൈഡിൽനിന്ന് വാങ്ങിയ ഷിർട്ടിൻ്റെ പോലെയായിക്കണ് പക്ഷെ അത് ഞാനവിടെ തിരിച്ചു തിരിച്ച് കൊടുത്തിട്ട് വേറെ ഷർട്ട് വാങ്ങാം എന്നുള്ള നിലക്കാണ് ആയിരത്തഞ്ഞൂറ് ഉറുപ്പിയ കൊടുത്തുകൊണ്ട് വാങ്ങിയ ഷർട്ട് രണ്ടുദിവസം കൊണ്ടുതന്നെ കേട് വന്നു പറഞ്ഞാൽ ഭയങ്കര നഷ്ടമുള്ള സംഭവമാണ് ഇത്രയും മോശപ്പെട്ട ഒരു ടെക്സ്റ്റൈൽസ്